നമ്മുടെ നാട്ടിലെ വിവാഹങ്ങൾ ക്രമീകരിക്കുന്നത് എങ്ങനെയാണെന്നുവച്ചാൽ ആദ്യമായിട്ട് ഒരു പെണ്ണിനെ ഒരു ചെക്കൻ കാണാൻ പോവുകയാണെങ്കിൽ ഉദാഹരണം ഞാൻ ഒരു പെണ്ണുകാണാൻ പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് പെൺകുട്ടി ചായയുമായിട്ടു വരും എൻ്റെ കൂടെ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളുണ്ടാവും ചിലപ്പോൾ വീട്ടിലെ ആരെങ്കിലും ഉണ്ടാവാം അപ്പോൾ പെൺകുട്ടി ചായ തരും അതിനുശേഷം നമ്മൾ പെൺകുട്ടിയുമായി സംസാരിക്കും അതായത് ഞാൻ പെൺകുട്ടിയമായി സംസാരിച്ചശേഷം പെൺകുട്ടിക്ക് ഈ ആലോചനയിൽ അതായത് ഈ കല്യാണത്തിനു താല്പര്യമുണ്ടെങ്കിൽ പെൺകുട്ടി അവളുടെ അവരുടെ അച്ഛനും അമ്മയുമായി സംസാരിച്ച് അവര് ഓക്കെയാണെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വീടും സാഹചര്യവും കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നീട് ഇവിടുന്ന് കുറച്ചു പേര് നിലവിൽ ആദ്യം നമ്മള് മാത്രമായിരിക്കുമല്ലോ ഇതു കാണാൻ പോയിട്ടുണ്ടാവുക നമ്മുടെ കുടുംബക്കാരെയെല്ലാംകൂട്ടി അവിടെ പോയിക്കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പിന്നീട് കല്യാണം ഉറപ്പിക്കുകയാണു ചെയ്യാറ് പതിവ് അങ്ങനെയാണ് ഒരു കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് പിന്നീട് ബുക്കെയ്ത് കല്യാണം കഴിയുന്നതായിരിക്കും